ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനുഷ്യന് ഒരു ആരോഗ്യത്തിനൊരു വിലയും കല്പിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നുവെച്ചാൽ നമ്മുടെ ഈ ഇന്ത്യയിൽ ഒരു മനുഷ്യർ പോലും നമ്മൾ ഉപയോഗിക്കുന്ന ആഹാരം ആ ആഹാരം കഴിച്ച് അത് ഉണ്ടാവുന്ന വേസ്റ്റ് എല്ലാം നമ്മൾ എവിടെ നിൽക്കുന്നോ അവിടെ ഇട്ടേച്ച് പോകാനുള്ള പ്രവണതയാണ് നമുക്ക് കാണുന്നത് ആ ഒരു രീതി മാറ്റിയാൽ മാത്രമേ ഇവിടുന്ന് നമുക്ക് കൂടുതൽ ആരോഗ്യത്തോടുകൂടെ ജീവിക്കാൻ സാധിക്കുള്ളൂ ഇവിടെ ന താമസിക്കുന്ന എല്ലാവർക്കും മാറി മാറി ഈ പകർച്ചവ്യാധികളും അതും എല്ലാം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് വൃത്തിയില്ലാത്ത ഒരു രാജ്യമായിട്ടാണ് ഈ ഇന്ത്യ കാണുന്നത് വൃത്തി ആയിട്ട് കൊണ്ടുനടക്കാനുള്ള നമ്മുടെ പൊതു സ്ഥലങ്ങൾ ആണെങ്കിലും വീട് ആണെങ്കിലും പരിസരം ആണെങ്കിലും നമ്മൾ വൃത്തികേടായിട്ടുള്ള രീതിയാണ് കാണുന്നത് നമ്മൾ വൃത്തിയാക്കി സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ആരോഗ്യമുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുള്ളൂ ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മുടെ പരിസരങ്ങളെല്ലാം വൃത്തിയായിരിക്കണം നമ്മൾ കഴിക്കുന്ന ആഹാരവും നമ്മൾ കഴിക്കുന്ന ആഹാരവും നമ്മൾ വൃത്തിയോടെ ഉണ്ടാക്കി കഴിക്കാനും അത് നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ പുറത്ത് പോയി പല രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് മൂലം നമുക്ക് ആരോഗ്യത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ആഹാരം വെച്ച് ഉണ്ടാക്കി കഴിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുള്ളൂ